നമ്മുടെ സമൂഹത്തിൻ്റെ നൃത്തം ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന അവസരങ്ങൾ ഉത്സവങ്ങൾ എന്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്സവങ്ങൾ ഉത്സവങ്ങൾ കാര്യങ്ങളിലൊക്കെ നൃത്തം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഉത്സവ ടൈമിലൊക്കെ ഉണ്ടാകും അതായത് നാടോടി നൃത്തം മോഹിനിയാട്ടം തിരുവാതിര അങ്ങനെയുള്ള ഒരുപാട് നൃത്തങ്ങളൊക്കെ നമ്മളിങ്ങനെ ഉത്സവ ടൈമിലോക്കെ അതായത് സ്റ്റേജിൽ ഉണ്ടാകും അതായത് എക്സിബിഷൻ ഹാളുകളിൽ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമ്മൾ കാണാറുണ്ട് അതിന് അങ്ങനത്തെ കാര്യ അതായത് അങ്ങനെയുള്ള ടൈമിലൊക്കെ നൃത്തം ഒരുപാട് നല്ലൊരു പങ്ക് വഹിക്കുന്നൊരു കാര്യമാണ്